ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളഭാഷയ്ക്ക് വികസനം ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ

കാലക്രമേണയുണ്ടായതല്ല അത് കൈമാറ്റം വന്നതാണ് ഒത്തിരി കലാകാരന്മാരുണ്ടായിരുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം കേരളത്തിൽ കേരളം കേരളത്തിലെ നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത് മലയാളമാണ് അതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ചിലവര് അവരവരുടെ ഭാഷ മലയാളമാണെങ്കിൽ പോലും നമ്മുടെ ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട് അവരുടെ സംസാരരീതിക്ക് വ്യത്യാസമുണ്ട് ഭാഷയ്ക്കല്ല ഭാഷ മലയാളമാണെങ്കിലും സംസാര രീതി ഓരോ വാക്കിൻ്റെ പ്രയോഗം അതിനുള്ള വ്യത്യാസമുണ്ട് അപ്പോൾ അവർക്ക് അവരുടേതായ രീതിയിലുള്ള എഴുത്തുകൾ വന്നു ഭാഷയെ പിന്നെ എന്താ പറയുക ഭാഷയ്ക്ക് മുൻതൂക്കം കൊടുക്കാൻ തുടങ്ങി സ്കൂളുകളിലായാലും കോളേജുകളിലായാലും നമുക്ക് ലാംഗ്വേജ് എന്നൊരു ഇതിൽ മെയിൻ ലാംഗ്വേജ് ആയിട്ട് വരുന്നത് മലയാളമാണ് അതുകഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് പിന്നെ നമുക്ക് ചോയ്സാണ് വേണമെങ്കിൽ ഹിന്ദി എടുക്കാം അല്ലെങ്കിൽ മലയാളം എടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് അവർക്കിഷ്ടമുള്ളത് എടുക്കാമെന്നുള്ള ചോയ്സ് കാരണം പിന്നെ രാഷ്ട്രഭാഷയാണ് ഹിന്ദി മാതൃഭാഷയാണ് മലയാളം അപ്പോൾ നമ്മുടെ ചോയ്സിനാണ് നമുക്ക് പ്രാധാന്യം നൽകുന്നത് പത്ത് വരെ നമുക്ക് നിർബന്ധമാണ് ഏതൊരു കുഞ്ഞും മലയാളം പഠിക്കണം എന്നുള്ളത് നിർബന്ധമാക്കിയ കാര്യമാണ് അപ്പോൾ വികസനമാണ് അതിൽ നിന്ന് ഉണ്ടാകുന്നത് കാരണം പുരോഗതിയിലേക്ക് വരുന്ന ഒരു സമയം ആണ് എല്ലാവരും എബ്രോഡ് പോലുള്ള രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യാനും പഠിക്കാനും ആഗ്രഹിക്കുന്ന സമയത്ത് മലയാളം കൈമോശം വരാതെ അവരെ എല്ലാവർക്കും വായിക്കാനും എഴുതാനും പഠിക്കുന്ന രീതിയില് മലയാളം നമ്മൾ ചെറിയ ക്ലാസ്സിൽ തൊട്ട് തന്നെ പഠിക്കുന്നു പിന്നെ ഒത്തിരി കലാകാരന്മാരും ഉണ്ടാകുന്നു ഈ മലയാളഭാഷ ഒരിക്കലും നശിച്ച് പോകുന്നില്ല പഠിച്ചു വരുന്ന യുവതലമുറയിൽ കുറേ കഥാകൃത്ത് അലെങ്കിൽ കവിതാകൃത്ത് ഉണ്ടാകുന്നു എന്നത് വലിയൊരു എന്താ പറയുക പ്രശംസനീയമായ ഒരു കാര്യമാണ് അപ്പോൾ വളരെ നല്ല മാറ്റമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് കാരണം അടിച്ചമർത്തപ്പെടാതെ അതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഉയർത്തെഴുന്നേറ്റു എന്ന് വേണമെങ്കിൽ പറയാം നല്ല രീതിയിൽ മുന്നേറുന്നു എന്ന് വേണമെങ്കിലും പറയാം